ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് എ പി ജെ അബ്ദുൾകലാം അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെയാണ് മരണപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം വളരെയധികം ഉപകാരപ്രദമായിരുന്നു അദ്ദേഹത്തിന് അധ്വാനിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തി കൂടി ആയിരുന്നു ഒരു സ നിമിഷം പോലും വെറുതെ കളയാതെ എന്തെങ്കിലും ജനങ്ങൾക്കും ശാസ്ത്രത്തിനും ഇൻ ര നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും വളരെയധികം പ്രവൃത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം മുൻപേ കൂട്ടി പറഞ്ഞിരുന്നു അദ്ദേഹം മരിച്ചിരി മരിക്കുമ്പോൾ മരിച്ച ദിവസത്തിനോ അതിന് ശേഷമുള്ള ദിവസങ്ങളിലോ ഒരു സ്ഥാപനത്തിനും അവധി കൊടുക്കണ്ട ആവശ്യം ഇല്ല അത്രയധികം വളരെയധികം നല്ല ഒരു വ്യക്തിയാണ് എ പി ജെ അബ്ദുൾകലാം അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കും വളരെയധികം വ്യസനിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കുകയാണെങ്കിൽ നാമോരോരുത്തരും ഉന്നതിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല